ആ കേൾക്കാമോ

ആ സാറേ ആ പെരുന്നാളിനെ കുറിച്ച് ചോദിക്കാനായിരുന്നെ എങ്ങനെ ഉണ്ടായിരുന്നു പെരുന്നാളൊക്കെ

ഓ അതുശരി ആ ഓ അതുശരി ആളൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നോ

ആ അതുശരി ആ ഓ അത് നന്നായല്ലോ മ്മ് ആ പ്രദക്ഷിണം ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു

മ്മ് മ്മ് ആ ഞാൻ സ്ഥലത്തില്ലായിരുന്നു അതാ ഞാനേ ആ ഒരു യാത്രയിലാരുന്നു ആ പങ്കെടുക്കാൻ പറ്റിയില്ല ആ ഫാമിലി ഫാമിലിയും കൂടെ പുറത്തായിരുന്നു ആ ആ ആ ഞങ്ങൾ സ്ഥലം ഇതുവരെ എത്തിയിട്ടില്ല ഞങ്ങൾ അവിടുന്ന് പിന്നെ ഡൽഹിക്ക് പോന്നു ഡെൽഹിയിൽ നിന്നാണ് ഇപ്പോൾ വിളിക്കുന്നത് അടുത്താഴ്ച്ചയിലെ എത്തത്തുള്ളൂ മ്മ് ഓ വെള്ളമടി വെള്ളം വെള്ളം ഒക്കെ വെള്ളം അടിച്ചുകൊണ്ട് തുള്ളലൊക്കെ ഉണ്ടായിരുന്നോ അതോ ഒക്കെ ആ ഒന്നുമില്ലായിരുന്നു ആ ആ ഓക്കെ ഓക്കെ ഓക്കെ ആ ആ അതുശരി ആ ആ വികാരി അച്ഛന് സന്തോഷമായിക്കാണും ആ ഒത്തിരി ഒത്തിരി വന്നല്ലേ ആ ഓക്കെ ഓക്കെ ആ ആ ആ ആ ഞാനെ ഇതിൻ്റെ പിന്നെ എങ്ങനെ ഉണ്ടായിരുന്നു പെരുന്നാളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്നറിയാനായിട്ട് ഇങ്ങനെ വിളിച്ചെന്നെ ഉള്ളൂ ആ ആ ആ ഓക്കേ ഏതാ ആ ഡെൽഹിയിൽ അല്ലേ ആ അവിടെ അവിടെ അവിടെ നാളെയേതാണ്ടാ അവിടുത്തെ പെരുന്നാൾ അതേതായാലും കൂടിയേച്ചെ വരുന്നൊള്ളൂ എങ്ങനെയുണ്ട് ഇവിടുത്തെ ഇവിടുത്തെ അവിടുത്തെയും തമ്മിൽ എങ്ങനെയുണ്ട് പിന്നെ ഒരു താരതമ്യം ചെയ്യണമല്ലോ പിന്നെ ഇപ്പോൾ നാട് നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരെക്കാട്ടിലും കൂടുതലെല്ലാം ഇപ്പം പുറത്താണ് ഇപ്പോൾ യൂത്ത് ഒക്കെ ഇവിടെയാണ് കൂടുതലും എന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ അവിടെയൊന്നും യൂത്ത് ഒന്നും ഇപ്പം നാട്ടിലൊന്നും ഇല്ലല്ലോ എല്ലാവരും കാനഡേലോ ഓസ്ട്രേലിയേലോ ഒക്കെ അല്ലേ ആ ഓക്കെ ശരി ശരി ആ ഓക്കെ ഓക്കെ താങ്ക് യൂ താങ്ക് യൂ ആയ